എനിക്ക് വീട്ടിനകത്ത് ഏറ്റവും ഇഷ്ടം കളിക്കാൻ ഇഷ്ട്ടം ഉള്ള കളി എന്നുപറയുന്നത് ലുഡോ ഒക്കെയാണ് ലുഡോന്ന് പറയുമ്പം ഞങ്ങളീ കൊറോണക്കാലത്ത് എപ്പോഴും ലുഡോ കളിച്ചോണ്ട് ഇരിക്കും എന്നും ഞാനും എൻറെ കുറച്ച് കസിൻസും കൂട്ടകാരൊക്കെ കൂടിട്ട് എന്നും രാവിലെ തൊട്ട് കളിക്കാൻ തുടങ്ങിയ പിന്നെ കളി കഴിയുന്നത് വൈകുന്നേരം ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് കളിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും ഭയങ്കര ഇങ്ങനെ പ്രതികാരത്തോടൊക്കെ ദേശ്യപ്പെടും ഇപ്പം ഇങ്ങനെ വെട്ടുമ്പലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം ഒക്കെ വരും എന്നിട്ടതിനു അതിന് പകരം വീട്ടാൻ വേണ്ടിട്ട് അടുത്ത കളിലും മറ്റേ ആളെ തോൽപ്പിക്കുക അങ്ങനെ ആൾക്കാരെ കൂട്ടംകൂടി തോല്പിക്ക ആ എന്താ നല്ല രസമുള്ളൊരു സമയായിരുന്നു നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും നമുക്ക് ഈ ടൈമില് കളിയ്ക്കാൻ വരണം എല്ലാവരും ആ ടൈമിൽ റെഡി ആയിട്ട് ഇരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ ലുഡോക്ക നല്ല രസമായിട്ട് കളിക്കും എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ട്ടം നീല കളർ ആയിരുന്നു നീല കളർ മാത്രമേ ഞാൻ കളിക്കാറുണ്ടായിരുന്നു എൻറെ വിചാരം നീല കളർ എന്നു പറയുന്നത് എനിക്കൊരു ലക്കി കളർ എന്നതാണ് അപ്പം ഞാൻ കൂടുതലും നീല കളർ ആണ് കളിച്ചിരുന്നത് അത് കാരണം കുറെ കളിയൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ തോറ്റിട്ടും ഉണ്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയും എപ്പോഴും കളിച്ചോണ്ട് ഇരുന്നോന്ന് പക്ഷെ ആ സമയമൊക്കെ ഭയങ്കര രസമായിട്ടുപോയി നമുക്ക് അതുവരെ നമ്മുക്കിങ്ങനെ ഭയങ്കരെ നമ്മളെല്ലാരും തമ്മിലൊരു കണക്ഷനും ഒക്കെ കിട്ടി പിന്നെ വേറെ കളിച്ചിരുന്നൊരു കളിയാണ് കാരം ബോർഡ് കാരംസ് എന്താന്നു വെച്ചാൽ ഞാനിപ്പം അടുത്ത കാരംസ് കളിയ്ക്കാൻ പഠിച്ചത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളി ആയിരുന്നു കാരണം എൻറെ അമ്മമ്മേം മുത്തശ്ശനൊക്കെ നല്ല രീതിയിൽ കാരംസ് കളിക്കും അവരാണ് പഠിപ്പിച്ചത് അവർ ലക്ക് രണ്ട് സ്റ്റയിൽ ഉണ്ടല്ലോ ആ രണ്ട് സ്റ്റയിലും നന്നായി പഠിപ്പിച്ചു ടീം ആയിട്ടും ഇൻഡിവിജൽ ആയിട്ടുള്ള കളിയൊക്കെ പഠിപ്പിച്ചു പിന്നെ അത് നല്ല രീതി ശ്രദ്ധിച്ചുകളിക്കേണ്ട ആണ് നമ്മളെ നല്ല നല്ല കോൺസെൻട്രേഷനിൽ കളിക്കേണ്ട ഒരു കളിയാണ് കാരം ബോർഡ് അതുവഴി നമുക്ക് നല്ല ഇതൊരു ശ്രദ്ധയൊക്ക കിട്ടും പിന്നെ ഇഷ്ട്ടം ഉള്ളകളി കാർഡ്സ് വച്ചിട്ടുള്ള കഴുത കളിക്കാന്നൊക്കെ പറയും അയ്യോ അത് പണ്ട് കാലത്തെ കളിച്ചിരുന്ന കളിയാണ് അത് നമ്മളിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് പോവുന്നൊരു കളിയായിരുന്നു നമ്മളിങ്ങനെ കളിയ്ക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ നിർത്തില്ല അടുത്ത റൌണ്ട് ആയി അടുത്ത റൌണ്ട് ആയി അടുത്ത റൌണ്ട് ആയി നമ്മളിങ്ങനെ നിർത്താണ്ട് കളിച്ചുപോവും അങ്ങനെ ഞങ്ങൾ എപ്പളും കളിക്കുന്ന ഒരു കളിയാണ് കഴുത പിന്നെ ഏതാ പിന്നെ വീട്ടിനുള്ളിൽ കളിക്കുന്നത് കല്ലുകളിക്കുന്നൊരു കളിയുണ്ട് അത് ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്നൊരു കളിയാണ് കല്ലുകൊണ്ട് കളിക്കുന്ന കളി പിന്നെ പാമ്പും കോണി പാമ്പും കോണിയും പിന്നെ ഫോണിൽ ഓൺലൈൻ ആയിട്ട് കുറെ ഗെയിമുകൾ കിട്ടും അതിലാണ് പാമ്പും കോണിയും കൂടുതലും കളിക്കാറ് പാമ്പും കോണിയും നല്ല രസമാണ് നല്ല ടൈമെടുക്കും നമ്മളിങ്ങനെ എത്താറായി എന്നുവിചാരിക്കണ ടൈമിലായിരിക്കും പാമ്പ് നമ്മളെ വിഴുങ്ങുന്നുണ്ടാവുക അങ്ങനെ പാമ്പ് വിഴുങ്ങിട്ട് നമ്മൾ പിന്നേം ആദ്യം മുതൽ കളിച്ച് തുടങ്ങി നല്ലൊരു രസമുള്ള കളിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ട്ടം ലുഡാണ് ലുഡോ കളിക്കാൻ തുടങ്ങിന്നുപറഞ്ഞാൽ നമ്മൾ കുറെ പേര് ഒരുമിച്ചിരുന്നൊക്കെ ലുഡോ കളിക്കും പിന്നെ ഞങ്ങള നാട്ടിൽ ഒരു കാലത്ത് ലുഡോ മാച്ച് വരെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൂടിട്ട് ലുഡോ കളിച്ച് ലുഡോ കളിച്ച് കുറെ ടീമുകൾ ടീമുകളായിട്ട് ലുഡോ കളിച്ചിട്ടുള്ളൊരു വലിയ ലുഡോ മാച്ച് വരെ ഉണ്ടായിട്ടുണ്ട് അത് ഈ കൊറോണക്കാലത്ത് ഉണ്ടായൊരു സംഭവമാണ് അങ്ങനെ കുറെ സംഭവങ്ങൾ കാരണം നമ്മളെങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഈ ഫോണും ടി വിയും ആൾക്കാരേം കണ്ട് കണ്ട് മടുത്തിട്ടാണ് ആൾക്കാർ ഇതുപോലത്തെ കളികളൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമയോം ലാഭിക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നല്ല രീതിയിലൊരു സമയം ഉപയോഗിച്ചുന്നൊരു ഒരു തോന്നൽ നമുക്ക് തോന്നും പിന്നെ അതുകൊണ്ട് നമുക്ക് സമയം തീരെ നഷ്ടപെട്ടുന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല നമുക്ക് നല്ല ഒരു രസമായിട്ട് ഓരോ കളികളും കളിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കാം